ഓക്കെ ഓക്കെ ആ പറഞ്ഞിരുന്നു ഏതോ പിന്നെ ഫ്രിഡ്ജിനെന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു വേറെ വല്ല കുഴപ്പവുമുണ്ടോ എന്തായിരുന്നു ഫ്രിഡ്ജിന്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് അതേയോ അതിന് വല്ല ഗ്യാസ് കയറിയിട്ടായിരിക്കും അങ്ങനെയുള്ള കംമ്പ്രസ്സറോ ഗ്യാസ് ഒക്കെ കയറുമ്പോൾ ഉള്ള പ്രശ്നമായിരിക്കും ഞാനിവിടെ നിന്ന് പിന്നെ ആളെ വിടാം അതിൽ പിന്നെ ഹീറ്റിങ്ങ് കൂള് പോയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും എന്തായാലും അത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നന്നാക്കിത്തരാൻ പറ്റില്ല നിങ്ങളത് ഞങ്ങൾ പിന്നെ ഫ്രിഡ്ജ് നന്നാക്കാൻ വരുമ്പോൾ അതൊന്ന് അവരുടെ കയ്യിൽ കൊടുത്ത് വിട്ടാൽ മതി നമ്മളത് റെഡിയാക്കിയിട്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ടി വിക്ക് എന്തായിരുന്നു അയ്യോ അത് പിക്ചർ ട്യൂബ് പോയതായിരിക്കും നമുക്കൊരു കാര്യം ചെയ്യാം അതും അന്നുതന്നെ നന്നാക്കാൻ പറ്റുമെങ്കിൽ അന്നുതന്നെ നന്നാക്കാം എന്തായാലും ഇവിടെ നിന്ന് രണ്ടു പേരെ എന്തായാലും വിടാം ഞങ്ങൾ നമ്മുടെ ഷോറൂമിൽ നിന്ന് സ്റ്റാഫിനെ രണ്ടു പേരെ വിടാം ഇപ്പം നിങ്ങൾ അതിൻ്റെ എന്തൊക്കെയാണ് പ്രശ്നം എന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി നന്നാക്കാൻ പറ്റുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിൻ്റെയൊക്കെ അന്ന് തന്നെ നന്നാക്കി എടുക്കാം എന്നാണ് തോന്നുന്നത് കൂളിങ്ങിൻ്റെയെല്ലാം പ്രശ്നമല്ലേ അപ്പോൾ എന്തെങ്കിലും ഗ്യാസ് കയറിയതാണെങ്കിൽ കൂളിങ്ങ് നിൽക്കില്ല അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങനെ വിടാം നിങ്ങൾ വീട്ടിലുള്ള ദിവസമൊന്ന് പറഞ്ഞാൽ മതി നമ്മൾ ഇവിടെ നിന്ന് ആൾക്കാർ വന്നുകൊള്ളും അപ്പോൾ എത്രയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് കുറേ ആയൊ എടുത്തിട്ട് എത്ര ആയി എടുത്തിട്ട് വൺ ഇയർ വാറന്റി അല്ലേ ഉള്ളത് ഓക്കെ ഓക്കെ ഓക്കെ അപ്പം ഞങ്ങളൊരു കാര്യം ചെയ്യാം എന്തായാലും കൊണ്ടുവരേണ്ടി വരുമോ നോക്കട്ടെ എന്തായാലും നമ്മൾ നമ്മൾ ഇവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് രണ്ടു പേരെ വിടാം വിട്ടിട്ട് അത് നോക്കി നോക്കട്ടെ എന്തായാലും ഇൻഡഷൻ കുക്കറ് അപ്പം തന്നെ നന്നാക്കാൻ എന്തായാലും പറ്റില്ല നമുക്കത് ഷോറൂമിലോട്ട് കൊണ്ടു വരേണ്ടി വരും ഏന്താണെന്നൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് ടീ വിയും ഓക്കെ ഓക്കെ ഓക്കെ ഞങ്ങൾ എന്തായാലും ഇന്ന് നിങ്ങൾ അവിടെയുണ്ടെങ്കിൽ ഇന്ന് തന്നെ വിടാം ഓക്കെ ഓക്കെ സാറേ ഇന്ന് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഷോറൂമിൽ നിന്ന് രണ്ടു പേരെ വിടാം അപ്പം സാറ് അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ അവർ എന്താ പറയുന്നതെന്ന് വച്ചാൽ അവർ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊള്ളും അപ്പോൾ എന്താണെന്ന് വച്ചാൽ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ ശരി എന്നാൽ